ഇന്ത്യയുടെ ചരിത്രംന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇന്ത്യ പണ്ട് ഭരിച്ചോണ്ടിരുന്നത് ബ്രിട്ടീഷുകാരാണ് കൂടുതലായിട്ടും ബ്രിട്ടീഷുകാരുടെ ഒരു അടിമത്വത്തിലാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഗാന്ധിജിയുടെ ഒരു സമര സത്യാഗ്രഹ പോരാട്ടങ്ങളും ഗാന്ധിജി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ രാഷ്ട്രപിതാവ് രാഷ്ട്രപിതാവെന്നു പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപിതാവാണ് അതായത് രാഷ്ട്രപിതാവെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയാണ് നമുക്ക് സ്വാതന്ത്രംന്ന് പറഞ്ഞ അതായത് നമുക്കിപ്പോൾ സ്വാതന്ത്രത്തോടെ ഒന്ന് പുറത്തിറങ്ങാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും മഹാത്മാ ഗാന്ധിയും മഹാത്മാ ഗാന്ധിടെയുള്ള കൂട്ടാളികളുമാണ് നമുക്ക് സ്വാതന്ത്രംന്ന് പറഞ്ഞത് നേടി തന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്ത് പതിനഞ്ചിനാണ് സ്വാതന്ത്രം ആ സ്വാതന്ത്രം അന്ന് കിട്ടിയത് ഇപ്പം നമ്മുടെ ഗാന്ധിജിയെ പോലുള്ള ആൾക്കാരാണ് നമുക്കത് നേടി തന്നത് അന്ന് ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു ഇന്ത്യ മൊത്തം അങ്ങനെ ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യേനെ ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിപ്പിച്ചത് ഗാന്ധിജി അടങ്ങുന്ന കൂട്ടാളികളാണ് എനിക്ക് ഏറ്റോം ഇഷ്ടം അതിനകത്ത് ഗാന്ധിജിയെ ആണ് പിന്നെ ഗാന്ധിജീന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മോ പലരുമുണ്ട് രാ രാജേന്ദ്ര പ്രസാദ് ജവഹർലാൽ നെഹ്റു അങ്ങനെ പല പലരുമുണ്ട് പലരേം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂടുതലായിട്ടും ഇഷ്ട്ടം ഗാന്ധിജിയെ ആണ്